ഇപ്പം ഗ്രാമപ്രദേശങ്ങളിൽ വരുന്ന കർഷകർക്കൊക്കെ വരുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളെന്ന് പറയുമ്പോൾ അവർക്ക് കാര്യമായിട്ട് എന്താ പറയാ ധനം സഹായങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ലഭിക്കില്ല ഈ സബ്സിഡി ഒക്കെ കിട്ടണമെങ്കിൽ ഭയങ്കര ദൂരത്തേക്ക് ഒക്കെ പോയിട്ടുവേണം അവർക്ക് ഇതൊക്കെ കണ്ടു പിടിച്ച് നേടിയെടുക്കാൻ അതൊക്കെ അവർക്ക് ഭയകര ബുദ്ധിമുട്ടാണ് പിന്നെ കാലാവസ്ഥയൊക്കെ മാറ്റം വന്നു കഴിഞ്ഞാൽ അവരുടെ സ്ഥലത്ത് എന്താ പറയാ അവർക്ക് കൃഷിയൊന്നും നല്ല രീതിക്ക് നോക്കാൻ ഒന്നും അവർക്ക് പറ്റില്ല കാരണം മഴയൊക്കെ ആണെങ്കിൽ അവർക്ക് എന്താ പറയാ വെള്ളപൊക്കം ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയകര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊക്കെ എന്താ പറയാ ഭയകര ഒരു അവർക്ക് ഒരു ഭയകര ബുദ്ധിമുട്ടാണ് പിന്നെ പുതിയ സാങ്കേതിക വിദ്യകളൊന്നും അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല കാരണം സാങ്കേതിക വിദ്യയൊക്കെ വേസ്റ്റ് വരുന്നതിന് അനുസരിച്ച് അവർക്ക് അങ്ങനെ വികസനങ്ങൾ ഒന്നും ഉണ്ടാകില്ല കാരണം അവർക്കത് എന്താണ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് ഒന്നും അങ്ങനെ അറിവൊന്നുമുണ്ടാവില്ല പിന്നെ ഇവർക്ക് എന്താ പറയാ അവിടുന്ന് ഇപ്പോൾ ഗ്രാമ പ്രദേശങ്ങളിൽ നിന്ന് അത് ട്രാൻസ്പോർട് ചെയ്യാൻ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കണമെങ്കിൽ ഒക്കെ അവർക്ക് എന്താ പറയാ അതിനെ പറ്റി വലിയ അറിവും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് എത്തിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ അവരുടെ കുറെ എന്താ പറയാ കൃഷിയൊക്കെ കുറെ ഒക്കെ നശിച്ച് പോകുമൊക്കെ ചെയ്യും കാരണം ഇവരുടെ കയ്യിന്ന് അത് ഇവർ എവിടെ കൊണ്ട് കൊടുക്കണം എങ്ങനെ ഇത് ആക്കണം എന്നുള്ള ബോധമൊന്നും അവർക്ക് ഉണ്ടാവില്ല കാരണം ഓരോ സമയത്തും അത് മാറി മാറി ഒക്കെ വന്നൊണ്ട് നിൽക്കുന്നുണ്ട് എവിടെയാണ് ഇത് എത്തിക്കേണ്ടത് ബുദ്ധിമുട്ടുകൾ ഒക്കെ അവർക്ക് ഉണ്ടാകും പിന്നെ എന്താ പറയാ ചെറുകിട കർഷകർക്കുള്ള പരിശീലനങ്ങൾ ഒന്നും അങ്ങനെ അവർക്ക് കിട്ടീട്ടുണ്ടാവില്ല കാരണം എന്താ പറയാ ഇ പ പരിശീലനമൊന്നും അവർ എങ്ങനെയാണ് കൃഷിചെയ്യേണ്ടത് എന്തൊക്കെ ഇതിനകത്തു യൂസ് ചെയ്യണം അങ്ങനെയുള്ള അറിവൊന്നും ഇല്ല അവർ പണ്ടത്തെ കൃഷിരീതി തന്നെയാണ് തുടർന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക്